ഇപ്പം മലയാളഭാഷ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സംസ്കാരത്തിനെ ആയാലും ഞങ്ങളുടെ വ്യക്തിത്വത്തിന് ആയാലും എന്താ പറയുക നല്ല രീതിക്ക് തന്നെയാണ് സ്വാധീനിക്കുന്നത് കാരണം മലയാള ഭാഷയിൽ ഇപ്പം ഞങ്ങള് എന്തൊക്കെ ഞങ്ങളുടെ രീതി അതായത് ഞങ്ങൾ സംസാ നമ്മുടെ സംസാര രീതിയാണെങ്കിലും പിന്നെ എന്താ പറയുക ഒരാളുമായിട്ട് ഇടപഴകുമ്പോൾ സംസാരിക്കുന്ന രീതിയായാലും നമ്മള് വർത്താനം പറയുന്ന ആയാലും എല്ലാം കൊണ്ടും തന്നെ നമ്മുടെ ഒരുസംസ്കാരത്തെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട് കാരണം മലയാള ഭാഷയ്ക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ നല്ല വിലയാണ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മലയാളഭാഷേനെ നല്ല രീതിക്ക് തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പിന്നെ നമ്മള് മലയാളത്തില് സംസാ ഒരാളും ആയിട്ട് ഇടപഴകുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിന് അത് നല്ല രീതിക്ക് സ്വാധീനിക്കുന്നുണ്ട് കാരണം നമ്മൾ ഒരാളും ആയിട്ട് നല്ല രീതിക്ക് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ വ്യക്തിത്വം എന്താ പറയുക നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് വെക്കാൻ കാഴ്ചവയ്ക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് കാരണം ഒരാൾക്ക് നമ്മളിൽ മതിപ്പുണ്ടാക്കിയെടുക്കാൻ ഒക്കെ മലയാളഭാഷ നമ്മളെ നല്ല രീതിക്ക് തന്നെ സഹായിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മള് മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം ഇതൊക്കെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് മലയാള ഭാഷ നല്ല രീതിക്ക് തന്നെയാണ് നമ്മളെ ഇതിനെയൊക്കെ സ്വാധീനിച്ചിട്ടുള്ളത്